ഹലോ ഹലോ ഇത് അല്ലേ ചേട്ടാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസമായി എൻ്റെ പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാര് ഫോട്ടോ ചോദിച്ച് കൊണ്ടിരിക്കുവാണ് ഏ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഈ ഫോട്ടോ

ഏ എൻ്റെ പേരോ എൻ്റെ പേര് ജോയല് ചേട്ടാ രണ്ടുമൂന്ന് ജോയലുള്ളത് ഒന്നും അല്ല എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ കണ്ടുകൂടെ നിങ്ങൾക്ക് ഞാനാണെന്ന് അതെൻ്റെ നമ്പര് സേവ് ചെയ്ത് വെക്കാത്തത് കൊണ്ടല്ലെ ചേട്ടാ ഇപ്പോൾ ആറ് മാസമായി കഴിഞ്ഞ ജനുവരി പന്ത്രണ്ട് ചേട്ടാ എനിക്കത് കിട്ടിയിട്ടില്ല ഇതുവരെ നിങ്ങള് എന്ത് ശ്ശേ ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം അർജന്റ് എനിക്കാണെങ്കിൽ മറ്റെന്നാൾ ഗൾഫി പോകാനുള്ളതാണ് ചേട്ടാ എറണാകുളത്ത് ഞാന് ഇപ്പോൾ ഇനി കയറി പോകുമ്പഴത്തേനും എനിക്ക് ഫോട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് ഈ അഥവാ എൻ്റെ പെണ്ണുമ്പിള്ളേനെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ വീഡിയോ കോളിലൂടെ മാത്രം കാണാൻ പറ്റു എനിക്ക് ഇടയ്ക്ക് എൻ്റെ കല്ല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കണ്ടേ അതും അല്ല എൻ്റെ കൂട്ടുകാരൊക്കെ അവിടൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാ അവർക്ക് കൊടുക്കണ്ടേ ചേട്ടാ ഫോണിന്റെ അല്ല ഏട്ടാ ആൽബം അല്ലെ നമുക്ക് വേണ്ടത് നമുക്ക് വീട്ട്കാരെ കാണിക്കണ്ടേ ആറ് മാസമായില്ലയോ

ചേട്ടാ അതും അല്ല ഞാൻ പറയുന്നത് ഇത് വീട്ട്കാരെ കാണിക്കണം അത് കഴിഞ്ഞ് ചിലപ്പോൾ പറയാൻ ഒക്കത്തില്ല ചിലപ്പോൾ ഞാൻ ആൽബം കൊണ്ടുപോകും ഇവർക്ക് വീട്ടുകാർക്ക് ഇനി കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമുക്കല്ലേ കാര്യമുള്ളൂ ചേട്ടാ നിങ്ങള് പൈസ മേടിക്കാൻ കാണിക്കുന്ന ഉത്തരവാദിത്തമെങ്കിലും ഈ ഫോട്ടോ തിരിച്ച് തരുമ്പോൾ കാണിക്കണ്ടേ ചേട്ടാ ഏ എൻ്റെ ഭാഗത്തെ തെറ്റാണോ നിങ്ങളുടെ ഭാഗത്തെ തെറ്റായിരുന്നോ നിങ്ങള് എവിടെയാണ് എവിടെയാണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത്

നമുക്ക് നിങ്ങളുടെ എല്ലാ വർക്കും ഈ കണക്ക് തന്നെ ആണോ സമയത്തിന് കൊടുക്കാത്ത വർക്കാണോ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ കല്യാണം ഞാൻ നിങ്ങളുടെ കയ്യിൽ തരത്തില്ലായിരുന്നു എൻറ്റൊരു ഫ്രണ്ടാണ് എന്നോട് പ്രീഫെർ ചെയ്തത് ഇത് കണക്ക് എൻറ്റൊരു ഫ്രണ്ടുണ്ട് അപ്പോൾ അവന് കൊടുത്താൽ അവൻ വില കുറച്ച് തരും കറക്റ്റ് സമയത്ത് തരും എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ